എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ശൈത്യകാലമാണ് അപ്പൊ ആ ശൈത്യകാലമെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സമയങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള ചൂടും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇപ്പൊ ഒരു മഴക്കാലം ആ ടൈമൊക്കെ ആണെങ്കിൽ നമുക്ക് മെയിനായിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് മഴക്കാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ തന്നെ പറ്റില്ല കാരണം ഇപ്പോ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മളിപ്പൊ വീടിനുള്ളിൽത്തന്നെ അടഞ്ഞിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്നത് ഇപ്പോ ശൈത്യകാലൊക്കെയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് പുറത്തിറങ്ങാൻ വേണ്ടി സാധിക്കും വെയിലാണെങ്കിലും നമുക്ക് ഇപ്പോ എവിടെയെങ്കിലും ഒന്ന് കേറി നിന്ന് കഴിഞ്ഞാൽ വെ തണലും കാര്യങ്ങളൊക്കെ കിട്ടും ഇപ്പോൾ വെയിലാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും വെയിലാണ് കുറച്ചുകൂടെ നല്ലത് കാരണം ബൈക്കിലൊക്കെ പോവുന്നവർക്കും നടന്നുപോവുന്നവർക്കും ഈ കുടയും കാര്യങ്ങളൊന്നും എടുക്കണ്ട ടൗണിൽ ഒരു മുഷിപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല മഴക്കാലം ഒക്കെയാണേൽ പലരീതിയിലുള്ള രോഗങ്ങളും കാര്യങ്ങളൊക്കെ വരുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക ഇപ്പോൾ ഈ വേനൽക്കാലം ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ് കാരണം നമുക്ക് രോഗങ്ങളൊന്നും അങ്ങനെ വല്യ രീതിയിൽ പിടിപെടില്ല നമുക്ക് ഇപ്പോ ഏതിലെ വേണമെങ്കിലും നമുക്ക് നടക്കാം കുടയും കാര്യങ്ങളൊന്നും എടുക്കണ്ട ഇപ്പ മഴയാണെങ്കിത്തന്നെ നമുക്ക് ഭയങ്കര അലമ്പായിരിക്കും കാരണമെന്നു വെച്ചാൽ നമ്മള് തെന്നി വീഴുക അങ്ങനത്തെ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും